മനുഷ്യ ജീവിതത്തിൻ്റെ നിലനിൽപ്പിന് വളരെ അത്യന്താപേക്ഷിതമായ ഒരു ഘടകമാണ് വെള്ളം വെള്ളത്തിന് നിറമോ രുചിയോ ഒന്നും തന്നെ ഉണ്ടാവത്തില്ല നമുക്ക് വെള്ളം എല്ലാവിധ ജീവിതത്തിൽ എല്ലാ ദിവസവും ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു വസ്തു വെള്ളമാണ് നമ്മൾ രാവിലെ ദിവസം തുടങ്ങുന്നത് തന്നെ അടുക്കളയിൽ നിന്നാണ് അടുക്കളയിൽ എല്ലാം ഭക്ഷണം പാകം ചെയ്യാനും അതുപോലെ തന്നെ പച്ചക്കറികൾ കഴുകാനും വെള്ളം ആവശ്യമാണ് പിന്നെ നമ്മള് ഏറ്റവും കൂടുതൽ കൃഷിക്ക് മൃഗങ്ങളുടെ സംരക്ഷണത്തിന് എല്ലാം നമുക്ക് ജലം ആവശ്യമുണ്ട് കുടിവെള്ളം മനുഷ്യരുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് അമ്പത്തഞ്ച് ശതമാനത്തിലധികം ഉള്ളത് കുടിവെള്ള വെള്ളമാണ് അപ്പം നമുക്ക് ജീവൻ നിലനിർത്താൻ ഏറ്റവും കൂടുതൽ അത്യാവശ്യം വെള്ളമാണ് പിന്നെ നമ്മൾ സാധനങ്ങൾ വൃത്തിയാക്കാൻ പച്ചക്കറികൾ വൃത്തിയാക്കാൻ കുളിക്കുവാൻ പാത്രങ്ങൾ കഴുകുവാൻ എല്ലാം തന്നെ ജലം ഉപയോഗിക്കുന്നുണ്ട് പാചകത്തിന് ജലം വളരെയധികം അത്യാവശ്യമാണ് പിന്നെ ജലത്തിൻ്റെ ഏറ്റവും വലിയ ഉപയോഗം എന്ന് പറയുന്നത് വൈദ്യുതി നിർമ്മാണമാണ് നമ്മടെ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ജലത്തിൽ നിന്നുമാണ്